പാലക്കാട് ജില്ലയിലെ കലാവസ്ഥ വളരെ അധികം ചൂടുള്ളൊരു കാലാവസ്ഥയാണ് സാധാരണ പ്രത്യേകിച്ചും വേനലിൽ ഉണ്ടാകാറുള്ളത് അത് ജനങ്ങളുടെ ജീവിതത്തെ വളരെ മോശപ്പെട്ട രീതിയിൽ തന്നെ ബാധിക്കാറുണ്ട് പ്രത്യേകിച്ചു വേനൽ വേനൽക്കാലത്തൊക്കെ നല്ല രീതിയിൽ തന്നെ പോ സൂര്യാതാപം ഏൽക്കുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് ജനങ്ങളുടെ ജീവിതം എന്നു പറയുമ്പോൾ വ്യവസായങ്ങളും കാര്യങ്ങളിലും നല്ല രീതിയിൽ തന്നെ ബാധിക്കാറുണ്ട് ചൂടുകാലത്ത് വ്യവസായ ശാലകളിൽ സാധാരണ പുതിയ വ്യവസായങ്ങൾ വന്നു പെടാറുണ്ട് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ജൂസ് പോലത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് അത്തരത്തിലുള്ള കച്ചവടങ്ങളിലേക്ക് ഇറങ്ങാറുണ്ട് ഇവിടെ താമസിക്കുന്ന ജീവി ആളുകളുടെ ജീവിതത്തെ വളരെ മോശപ്പെട്ട രീതിയിൽ ബാധിക്കാന്നു പ്രത്യേകിച്ചും ജോലി ചെയുന്ന ആളുകൾ പ്രധാനമായിട്ടും പുറത്ത് ചൂടത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആളുകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാറുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ തീവ്രമായ കാലാവസ്ഥ വളരെ മോശപ്പെട്ട രീതിയിൽ തന്നെ ജനങ്ങളെ ബാധിക്കാറുണ്ട്